ഇപ്പോൾ എന്റെ ബിസ്സ്നസ്സിന്റെ ഒക്കെയൊരു ഡെവലപ്മെൻറ്റിന് മാധ്യമങ്ങളുടെ സഹായമെന്നു പറയുന്നത് ഇപ്പോൾ വാർത്ത ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ ചെറിയ പരസ്യങ്ങളൊക്കെ കൊടുക്കും ന്നെ ഇപ്പോൾ ഓരോ ആവശ്യങ്ങളുടെ പേരിൽ നമ്മൾ കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ കൊടുക്കും അഡ്വെർടൈസ്മെൻറ്റ് ഒക്കെ കൊടുക്കും അതുപോലെ ഒരുപാട് ആളുകളെ വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയകളിലും ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അതിലൊക്കെ നമ്മൾത്തന്നെ പരസ്യങ്ങൾ കൊടുക്കും ഏഡ് കൊടുക്കും അപ്പോൾ ഒരുപാട് പേർ കാണും അതുപോലെ ഇപ്പോൾ വാട്സപ്പിലും ഒരുപാട് പേർക്ക് സ്റ്റോറി വെക്കുന്നതു പോലെ സ്റ്റാറ്റസ് വെക്കുന്നതു പോലെ കൊടുക്കും അപ്പോൾ ഒരുപാട് പേർ അതങ്ങനെയും കാണും അപ്പോൾ അങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ വഴി നമുക്കൊരുപാട് സഹായം ലഭിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും സാമ്പത്തിക ഉപദേശം നൽകുന്ന ഏതെങ്കിലും വിഭാഗം ഇപ്പോൾ മാഗസീൻ ഒക്കെ ഇപ്പോൾ കൃഷി കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ഈ മാഗസീനിലൂടെയൊക്കെ അറിയാൻ പറ്റും പുതിയ പുതിയ വിളവ് വിളകൾ സീസൺ കൊയ്ത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സങ്കരയിനം വിത്തുകൾ അങ്ങനെയുള്ള അതുപോലെ മാർക്കറ്റ് ചെയ്യാനുള്ള രീതികളൊക്കെ ഇപ്പോൾ കൃഷികളുടെ മാഗസീനിലൊക്കെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരിതുണ്ടാകും അതുപോലെ ചെറിയ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു കൃഷിക്കാരാണെങ്കിൽ അവർ ഒരു കർഷകസംഘം എന്നുള്ളൊരു സംഘം രൂപീകരിച്ച് അവരൊരു പ്രോഗ്രാം കണ്ടക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേർ വരും അപ്പോൾ എല്ലാവരുടെയും അവരവരുടെ ഐഡിയകൾ പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്